ഗ്രാമത്തിൽ സ്കൂളിൽ നല്ല മൂത്രപ്പുര കുടിവെള്ളം പുസ്തകങ്ങൾ മേശ കസേര ഭക്ഷണം ഒക്കെയുണ്ട് നാട്ടിലെ എന്താ പറയുക സ്കൂള് ഭയങ്കര അടിപൊളി സ്കൂളാണ് അത്ര വരെ എത്ര പന്ത്രണ്ട് ഇത് ബോയ്സിനും പന്ത്രണ്ട് ഇത് ഗേൾസിനും അങ്ങനെ അടിപൊളിയായിട്ടുണ്ട് ഏ മൂത്ര പുരക്ക് ഒരു കുറവുമില്ല ഗ്രാമത്തിലാണ് സ്കൂളല്ല ഗ്രാമത്തിലെ സ്കൂള മൂത്ര പുരയില്ല ഉഷാറാണ് ഉഷാറ് പിന്നെ കുടിവെള്ളം ആണെങ്കിൽ എത്രവരെ കുഴൽ കിണറും ഒരു സാധാരണ കിണറുമുണ്ട് അപ്പം കുഴൽ കിണറും സാധാരണ കിണറും ഉണ്ട് രണ്ട് രണ്ടും വെച്ച് ടാങ്ക് ഉണ്ട് പിന്നെ നല്ല രാറത്തായിട്ട് കുടിവെള്ളം കിട്ടുന്നുണ്ട് കഞ്ചകാന് കുഴൽ വെള്ളം ഉപയോഗിക്കും കുടിക്കാൻ കിണർ വെള്ളം ഉപയോഗിക്കും നല്ല റാഹത്താണ് പിന്നെ പിന്നെ മഴക്ക് വെള്ളം സംഭരിക്കാനുള്ള ഒരു സംഭരണിയുണ്ട് അങ്ങനെ ഒക്കെ ഉഷാറാകുന്നുണ്ട് കുടിവെളത്തിൻ്റെ ഭാഗം ഉഷാറാണ് പിന്നെ പുസ്തകങ്ങൾ നല്ല വലിയ ലൈബ്രറി ഉണ്ട് പുസ്തകങ്ങൾ ഇഷ്ടം പോലെയുണ്ട് കുട്ടികൾക്കൊക്കെ എല്ലാ പോലും ഫ്രീ ആയിട്ട് പുസ്തകങ്ങൾ കൊടുക്കലുണ്ട് ഗ്രാമത്തിൽ സ്കൂള് നല്ല ഉഷാറാണ് ഉഷാറ് സ്കൂൾ ആണ് എല്ലാവർക്കും നല്ല പുസ്തകങ്ങൾ കൊടുക്കുന്നുണ്ട് നോട്ട് ബുക്കൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കും സ്കൂളിൽ നിന്ന് അങ്ങനെ കുട്ടികൾ ഭയങ്കര സാറ്റിസ്ഫൈറ് ആണ് സ്കൂളിൻ്റെ ഭാഗത്ത് നിന്നും നല്ല പെരുമാറ്റമാകാനാണ് കുട്ടികളെ ഏറ്റിയുള്ളത് അതൊക്കെ ഒക്കെയാണ് പിന്നെ സ്കൂള തന്നെ സ്റ്റോറും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ പുസ്തകം വാങ്ങാനും ഇതിനൊക്കെ സുഖമാണ് പിന്നെ മേശയും കസേര എന്ന് പറഞ്ഞാൽ മേശ നാല് മേശ ഓഫീസിലുണ്ട് പിന്നെ ലൈബ്രറിയിൽ ആവശ്യമായ ഫർണീച്ചർ ഉണ്ട് പിന്നെ എല്ലാ ക്ലാസ്സിലും മേശകളുമുണ്ട് കസേരകളും എല്ലാ ക്ലാസിലും ടീച്ചേഴ്സിന് ഇരിക്കാൻ കസേരകളുണ്ട് പിന്നെ കുട്ടികൾക്ക് എന്തേലും വയ്യായ്ക് കാര്യങ്ങളുണ്ടെങ്കിൽ ഇരിക്കാനും കസേരകളും ടേബിളും എല്ലാ ക്ലാസിലും സജ്ജീകരിച്ചിട്ടുണ്ട് ലൈബ്രറിയിലും ആവശ്യത്തിലധികം കസേരകളുണ്ട് പിന്നെ ഓഫീസ് റൂമിലും ആവശ്യത്തിൽ അധികം കസേരകൾ ഉണ്ട് അപ്പോൾ ഉഷാർ രാഹത്താണ് പിന്നെ ഭക്ഷണം ഭക്ഷണത്തിൻ്റെ കേസാണ് ഭക്ഷണം നല്ല ചെറുപയർ ചോർ ഉച്ചക്ക് ഉണ്ടാകും പിന്നെ അത്യാവശ്യം നല്ല പോഷകപരമായ ഭക്ഷണങ്ങളുണ്ടാകും മുട്ടയും പാലും ഉണ്ടാകും ആഴ്ചയിൽ നിശ്ചിതമായ ദിവസങ്ങളിൽ അപ്പം ഇതിലൊക്കെ നമ്മൾ കൂട്ടുക ഇതിൽ ഇങ്ങനെ മെച്ചപ്പെടുത്തുക എന്ന് ചോദിച്ചാൽ മെച്ചപ്പെടുത്തുന്നത് എങ്ങനെ വെച്ചാൽ ഇപ്പം ഉള്ള സൗകര്യങ്ങളൊക്കെ എല്ലാവർക്കും കൃത്യമായിട്ട് എത്തിക്കുക ഏ അതാണ് ഏറ്റവും വലിയൊരു കാര്യം കൃത്യമായുള്ള സൗകര്യം എല്ലാവർക്കും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അതിനെ ചെയ്യുക അതിനെ വിസ്തരിക്കുക അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും എല്ലാവർക്കും ഉപയോഗിക്കുക ഒരുപോലെ ഉപയോഗിക്കാനുള്ള ഒരു ഇത് കൊടുക്കുക പിന്നെ അധ്യാപകർ അയിന്ന് ചാമ്പിണ് ശ്രദ്ധിക്കുക അധ്യാപകരുടെ കയ്യിൽ നിന്ന് മുക്കണത് അഴിമതി നടത്തനൊക്കെ നടക്കുക അതൊക്കെ ഇതിനും മെച്ചപ്പെടുത്താൻ ഭയങ്കര ഹെൽപ്പ് ഫുൾ ആകുന്നൊരു കാര്യമാണ് എത്രയും പ്രധാനപ്പെട്ടത് നമ്മൾ സ്കൂൾ എന്താവുക എല്ലാവർക്കും സൗകര്യങ്ങൾ ഇതാക്കാനുള്ള കൊലത്തിലാക്കി എല്ലാവർക്കും സൗകര്യങ്ങൾ എത്തുന്ന കൊലത്തിൽ നമ്മൾ ആക്കി അതാണ് മാക്സിമം മെച്ചപ്പെടുത്താനുള്ളത്